എനിക്ക് പോകാനുള്ള ആഗ്രഹംന്നു പറഞ്ഞാൽ അമേരിക്ക കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അമേരിക്കയിൽ പോകാൻ അവസരം ലഭിച്ചുകഴിഞ്ഞാൽ അമേരിക്കയിൽ പോയി അവിടെയുള്ള അവരുടെ ജീവിതവും എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അവിടത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ള ലൈഫ് ആയിരിക്കും നമുക്ക് കുറെ ക്യാഷ് കിട്ടും അങ്ങനെ പല ആഗ്രഹങ്ങളും നടക്കാനുള്ള ചാൻസും അവിടെയാണ് കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനത്തൊരു ഇപ്പോൾ കൂടിപ്പോയാൽ പതിനായിരം പതിനൈയ്യായിരം കൂടിപ്പോയാൽ ഇരുപതിനായിരം അതിൽ കൂടുതൽ ഒരു സാലറിയും നമുക്ക് കിട്ടില്ല ഇനി അവിടത്തെ ലൈഫ് എന്നുപറഞ്ഞാൽ അടിപൊളി സ്ഥലങ്ങളായിരിക്കും നമ്മളിവിടെ ഉള്ളപോലെ ഈ ഇന്ത്യയിൽ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ചേരികളും എന്താ പറയാ വൃത്തിഹീനമായ സ്ഥലങ്ങളും എല്ലാകാര്യങ്ങളുമാണുള്ളത് ഇപ്പോൾ ഒരാൾക്കുപോലും മര്യാദക്കൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അവിടെന്ന് പറഞ്ഞാൽ ബെറ്റർ ലൈഫ് എല്ലാവർക്കും വീട് കാറ് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അവിടെയുള്ളവർക്ക് അപ്പോൾ നമുക്ക് കൂടുതലും ബെറ്ററായിട്ട് തോന്നുന്നത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയി അവിടെയുള്ള ആൾക്കാരുടെ ജീവിതങ്ങൾ കണ്ടുപഠിക്കാനും എല്ലാകാര്യങ്ങളും നോക്കാനൊക്കെ നല്ലത് എനിക്ക് അമേരിക്കയായിട്ടാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അമേരിക്കയിൽ പോകാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ട്ടം